സാങ്കേതിക വിദ്യയിൽ പുരോഗതി ഇപ്പോഴത്തെ സ്മാർട്ട് ഫോണൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിലൊത്തിരി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എനിക്ക് അത് വീട്ടിലിരുന്നു തന്നെ ഇൻറ്റർനെറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ മക്കൾ വിദേശത്താണ് അപ്പം ആ ഈ സ്മാർട്ട് ഫോണില്ലെങ്കിൽ എനിക്ക് അവരുമായിട്ട് ബന്ധപ്പെടാനോ അവരെ കണ്ട് സംസാരിക്കാനൊന്നും സാധിക്കത്തില്ല അപ്പോൾ എനിക്ക് അവരെ എൻ്റെ വീട്ടിലിരുന്നു തന്നെ എൻ്റെ മക്കളോടും മരുമക്കളോടും കൊച്ചു മക്കളോടും എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട് അതെനിക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ് പിന്നെ പിന്നെ ഞങ്ങൾ ടിക്കറ്റൊക്കെ ഓൺലൈൻ വഴി ഗൂഗിൾ വഴി സർച്ച് ചെയ്ത് എടുക്കാറുണ്ട് ഹോട്ടലൊക്കെ ബുക്ക് ചെയ്യാറുണ്ട് പിന്നെ ഗൂഗിൾ പേ ആണ് ഉപയോഗിക്കുന്നത് ഗൂഗിൾ പേ വഴിയും ഫോൺ പേ വഴിയും ഇപ്പം കയ്യിൽ പൈസ കൊണ്ടു നടക്കാറേ ഇല്ല ഈ പൈസ ഫോൺ പേ വഴി ഉപയോഗിക്കുന്നു സ്മാർട്ട് ഫോണും ഇൻറ്റർനെറ്റും സൗകര്യം വന്നതോടു കൂടി ഒരുപാട് വലിയ സഹായങ്ങളാണ് ഒത്തിരി സമയലാഭമുണ്ട് എല്ലാം നമുക്ക് സ്മാർട്ട് ഫോൺ എല്ലാ സന്തോഷത്തിനും ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ വളരെ സന്തോഷം നിറഞ്ഞ ഒരു അവസ്ഥ സ്മാർട്ട് ഫോൺ വഴി കിട്ടുന്നുണ്ട് മക്കളുമായിട്ട് സംസാരിക്കാൻ പറ്റുന്നു ബാങ്കിൽ പോകാതെ തന്നെ ബാങ്കിലേക്ക് നമ്മൾക്ക് പൈസ മറ്റുള്ളവർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നു മൊബൈലിൽ കൂടെ തന്നെ തന്നെ പിന്നെ ഗൂഗിൾ പേ ചെയ്യാൻ സാധിക്കുന്നു ഫോൺ പേ ചെയ്യാൻ സാധിക്കുന്നു ടിക്കറ്റ് എടുക്കാൻ സാധിക്കുന്നു വാട്സാപ്പ് വഴി സംസാരിക്കാൻ സാധിക്കുന്നു ഫേസ്ബുക്ക് വഴി എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കുന്നു നമ്മുടെ ഫോട്ടോയൊക്കെ നമുക്ക് നശിക്കാതെ സൂക്ഷിക്കാൻ പറ്റുന്നൊരു മാർഗ്ഗമായിട്ട് ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു ഫോണിലൂടെ തന്നെ ഇതെല്ലാം സേവ് ചെയ്തു വെയ്ക്കാനും എല്ലാം സാധിക്കുന്നുണ്ട് വലിയ അനുഗ്രഹം തന്നെയാണ് ഇൻറ്റർനെറ്റ് വഴി സാങ്കേതിക വിദ്യയുടെ പുരോഗതി എൻ്റെ ജീവിതത്തിലുണ്ടാക്കിയ മാറ്റം